കുറച്ചു വർഷങ്ങൾക്കു മുമ്പുള്ള മൊബൈലുകളിൽ ബട്ടണുകൾ ആണ് ഉണ്ടായിരുന്നത് അത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പ്രയാസമാണ് ഒരു വിൻഡോയിൽ നിന്നും മറ്റൊരു വിൻഡോയിലേക്ക് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നതിലും വളരെയധികം സ്ലോ ആയിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് എന്നാല് ഇപ്പത്തെ സ്മാർട്ട് ഫോണുകളിൽ വളരെയധികം ഫീച്ചറുകൾ നമുക്ക് പുതിയതായി വന്നിട്ടുണ്ട് എല്ലാ ഫീച്ചറുകളിലും ഓരോതായ ഗുണങ്ങളുണ്ട് ഇൻറ്റർനെറ്റിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇൻറ്റർനെറ്റിൻ്റെ സ്പീഡും ലഭ്യതയും ചെല ചെല കുറവും കാര്യങ്ങളും എല്ലാം വളരെയധികം മേന്മയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് വി ഐ സിമ്മാണ് പ്രതിമാസം ഏകദേശം ഇരുനൂറ്റി അമ്പത് മുന്നൂറ് രൂപയോളം ഓരോന്നിലും നമുക്ക് വരുന്നുണ്ട് അതു കൂടാതെ വൈഫൈ മോഡവും എടുത്തിട്ടുണ്ട് അതിലും വളരെയധികം ഇൻറ്റർനെറ്റിൻ്റെ ലഭ്യത നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട് നെറ്റ് കിട്ടാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്